എന്താടീ പറഞ്ഞോ ആ എനിക്ക് കുറച്ച് ആയുർവേദ ഹോസ്പിറ്റൽസൊക്കെ അറിയാം കേരളത്തിൽ ആയുർവേദ ഹോസ്പിറ്റൽസ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ ആ ശ്രീധരി കോട്ടയത്ത് ഉണ്ടോയെന്നറിയത്തില്ല നോക്കാം ആ ശ്രീധരീയ ആയുർവേദിക് ഐ ഐ ക്ലിനിക്ക് ഉണ്ട് അത് ഈ കൂത്താട്ടുകുളത്താണ് വരുന്നത് അവരുടെതന്നെ കുറേ കുറേ സ്ഥലത്തുണ്ട് എറണാകുളത്തും അങ്ങനെ കുറേ സ്ഥലത്തുണ്ട് പിന്നേ സുദർശന ആയുർവേദ ഐ ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് പക്ഷെ അത് തിരുവല്ലയിലാണ് അതും കോട്ടയത്തിനടുത്താണല്ലോ പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത് കല്ലൂർക്കാടെന്നു പറഞ്ഞ സ്ഥലത്തുണ്ട് വാഴക്കുളത്തിനടുത്ത് അത് ആയുർവേദ ഐ ഹോസ്പിറ്റലാണ് അതും അത്യാവശ്യം നല്ലതാണ് പിന്നെ മാതാ ആയുർവേദ ഐ ഹോസ്പിറ്റലുണ്ട് പക്ഷെ അത് തിരുവനന്തപുരത്താണ് നമുക്ക് കോട്ടയത്തിനടുത്ത് വരുന്നത് ശ്രീധരീയം ഐ ഹോസ്പിറ്റലാണ് അപ്പം അത് കൂത്താട്ടുകുളത്ത് അടുത്താണല്ലോ പിന്നെ അവിടെ അതിൻ്റെ കുറേ ബ്രാഞ്ചസൊക്കെ ഉണ്ട് അപ്പം നല്ലതാണെന്നാണ് തോന്നുന്നത് ഈ അടുത്ത് എൻ്റെ ആൻ്റി ആണെങ്കിൽ ആൻ്റിക്ക് ഇത് പോലെതന്നെ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷനും ആ ചൊറിച്ചലക്കെ ആയിട്ട് ആ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് കണ്ണാടിയെക്കെ വാങ്ങിച്ച് വച്ചിരുന്നു അപ്പം ആൻ്റി പറഞ്ഞാണ് എനിക്ക് ഈ ഹോസ്പിറ്റലിനെപ്പറ്റി അറിയുന്നത് ആ അവിടുത്തെ ആ അവിടുത്തെ സർവ്വീസൊക്കെ നല്ലതാണ് അപ്പോൾ ആൻ്റി പോയപ്പോൾ ഞാൻ ആൻ്റിയുടെ കൂട്ടത്തിൽ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ആ അറ്റ്മോസ്ഫിയറൊക്കെ ആണെങ്കിലും നല്ല രസമാണ് പിന്നെ അവിടെ ഒരുപാട് ഫോർനേഴ്സും ടൂറിസ്റ്റേഴ്സൊക്കെയാണ് വരുന്നത് അവിടെ അമ്പലവും ആ ഹോസ്പിറ്റലൊക്കെ അടുത്തായിരുന്നു പിന്നെ കൂത്താട്ടുകുളമാണെങ്കിലും ആ ഇവിടെ നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ആ ഒരുപാട് ദൂരം ഒന്നുമില്ലല്ലോ അടുത്ത സ്ഥലമല്ലേ ഒരു നാല്പത്തഞ്ച് മിനിറ്റത്തെ ദൂരമേ ഉളളൂ അതുകൊണ്ട് അത് നല്ലൊരു ഹോസ്പിറ്റലാണ് അപ്പം നമുക്ക് അവിടെത്തന്നെ പോയി നോക്കാം അവിടെ പൈസേൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട് ഞാൻ ആൻ്റിയോട് ചോദിച്ചിട്ട് വിളിച്ച് പറയാം

ആ കുഴപ്പമില്ല ആ ഞാൻ വരാം നമുക്കൊരുമിച്ച് പോവാം ആ ഓക്കേ ശരി എന്നാൽ